ഞാനൊരു വീട്ടമ്മയാണ് ഞാൻ വീട്ടിലെ പണികളെല്ലാം ചെയ്തുകഴിഞ്ഞതിനു ശേഷം എൻ്റെ ഭർത്താവിൻ്റെ ജോലിയായ കൊപ്ര ഉണക്കൽ കൊപ്ര ഉണ്ടാക്കൽ എന്നീ ജോലികളിലേക്ക് സഹായിക്കും അതായത് ഞങ്ങൾ കൊപ്ര നാളികേരം വെട്ടി അതിൽ നിന്ന് വെള്ളം എല്ലാം കളഞ്ഞ് ഡ്രൈയറിൽ കയറ്റി ചൂടാക്കുന്നു നാളികേരം അതിനെ കൊപ്ര എന്ന് വിളിക്കും ആ കൊപ്രയിൽ നിന്ന് ചിരട്ട മാറ്റണം എങ്കിൽ മാത്രമേ ഉണക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കൊപ്രയിൽ നിന്ന് ചിരട്ട മാറ്റുക എന്ന പ്രവർത്തിയാണ് ആ പ്രവർത്തിയെല്ലാം ചെയ്ത് ചിരട്ടയിൽ കൊപ്രയിൽ നിന്ന് ചിരട്ടയെല്ലാം മാറ്റിയിട്ട് വീണ്ടും വെയിലുണ്ടോ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് അല്ലെങ്കിൽ വീണ്ടും ഡ്രൈയറില് കയറ്റി ചകിരി മുതലായ വസ്തുക്കൾ ഉപയോഗിച്ച് കത്തിക്ക് രണ്ടു മൂന്ന് തവണ റീപ്ലേസ് ചെയ്യും മാറി മാറി മാറ്റി മാറ്റി അങ്ങോട്ടുമിങ്ങോട്ടും മറിച്ച് മറിച്ചിട്ട് അതിനെ ഉണക്കിയെടുക്കുന്നു ഉണക്കിയെടുത്ത കൊപ്രയെ ഞങ്ങൾ മില്ലിൽ കൊണ്ടു പോയി ആട്ടി ശുദ്ധമായ വെളിച്ചെണ്ണ ലഭിക്കുന്നു ആ വെളിച്ചെണ്ണ ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത് പൈസ വാങ്ങിക്കുകയും അങ്ങനെ എൻ്റെ കുടുംബം സുഖമായി പോവുകയും ചെയ്യുന്നു